എൻ്റെ നഗരത്തിൽ ഞാനിപ്പോൾ താമസിക്കുന്നതെന്നു പറയുന്നത് തൃശ്ശൂർ ജില്ലാ എന്നു പറയുന്ന ജില്ലയിലാണ് ഇവിടെ ബാലവേലയെന്നു പറയുന്നത് ഒരുപാടു കണ്ടു വരാത്ത ഒരു കാര്യം തന്നെയാണ് ഇവിടെ കേരളമെന്നു പറയുന്നത് ഏറ്റവും സാക്ഷരത ലഭിച്ച ഒരു ജില്ലെയ സ സംസ്ഥാനമാണ് അപ്പം അവിടെ ഇവിടെ ബാലവേല എന്നു പറഞ്ഞു വരുന്നത് വളരെ കുറ കുറവാണ് ഉൾപ്രദേശങ്ങളിൽ നമ്മൾ കാണാൻ പറ്റാത്ത ഉൾപ്രദേശങ്ങളിൽ ചെറിയ രീതിയിൽ ബാല വേലകൾ ഉണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ കണ്ട് നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ ബാലവേല എന്നുള്ള രീതിയിൽ വലിയ രീതിയിലൊന്നും കണ്ടു വന്നിട്ടില്ല അപ്പോൾ എൻ്റെ അഭിപ്രായമെന്നു പറയുന്നത് ബാലവേലയെന്നു പറയുന്നത് ഒരു പ്രായത്തിനു ശേഷം കുട്ടികളെ ജോലിയിൽ ജോലിക്ക് അനുവദിക്കാം പക്ഷെ പഠിക്കുന്ന പ്രായം ഇപ്പോൾ ഒരു പതിനെട്ട് പത്തൊൻപതു വയസ്സു വരെ കുട്ടികളെ ജോലിക്ക് അന് അനുവദിക്കുന്നത് നമുക്ക് എനിക്ക് താത്പര്യം ഉള്ള അതുപോലെതന്നെ ജോലി എടുക്കുകയെന്നു പറയുമ്പോൾ സ്വമേധയാ അവരുടെ കഴിവുകൾ വെച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി വിൽക്കുക അതൊക്കെ ജോലിയായിട്ട് കണക്കാക്കണ്ട ആവശ്യമില്ല അതൊക്കെ അവരുടെ ഓരോ ആഗ്രഹങ്ങൾ കൊണ്ട് അവർ ചെയ്യുന്നതാണ് പക്ഷെ പലേ സ്ഥാ സ്ഥാപനങ്ങളിൽ ഇങ്ങനത്തെ തോന്നെലം തുടക്കുന്ന ജോലി അതുപോലെതന്നെ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്ന ജോലി അതുപോലെ ഉള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാണ്ട് അവരെ അവരെ അതിലേക്ക് തള്ളി വിടുന്നത് ത ചെയ്യുന്നത് സ്വമേധയാ ചെയ്യുന്നത് പ്രശ്നമല്ല അവരെ തള്ളി വിടുന്നത് അവരെ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോയി ചെയ്യിപ്പിക്കുന്നതെന്നു പറയുന്നത് വളരെ മോശമാണ് അങ്ങനത്തെ ബാലവേലകൾ ചെയ്യിപ്പിക്കരുത് ചെറിയ കുട്ടികളെ കൊണ്ട് പാത്രം കഴുകിക്കുക അവരെ പഠിക്കേണ്ട നേരത്ത് ഇങ്ങനെ ജോലികൾ ചെയ്യിപ്പിക്കുകയെന്നു പറയുന്നത് വളരെ മോശമാണ് പിന്നെ എന്തൊക്കെ ജോലികളാണ് കുട്ടികളെ വലിച്ചിഴക്കുന്നത് പറയുമ്പം എന്താ ഇങ്ങനെ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ഓരോ വീടുകളൊക്കെ നിർമ്മിക്കുന്ന നേരത്ത് കുട്ടികളെയൊക്കെ അവിടെ കാണും കല്ലുകൾ എടുത്തു കൊടുക്കുന്നതും അതുപോലെതന്നെ പല ഭക്ഷ്യ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും അത് കൊണ്ടെത്തിക്കാനുമൊക്കെ ആൾക്കാരെ കുട്ടികൾ നിയമിച്ചിരിക്കുന്നതു കാണാം